ആർത്തവം എന്നു പറയുന്നത് ഒരു തെറ്റായ ഒരു പ്രവണതയൊന്നും അല്ല നല്ലൊരു കാര്യം തന്നെയാണ് അതാരും കുറച്ചിലായി കാണുകയൊന്നും വേണ്ട ഒഴിവാക്കപ്പെടേണ്ട ഒരു സംഭവം ഒന്നുമല്ല ഇത് ആർത്തവമുണ്ടെങ്കിലേ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുള്ളു അവിടെ അതിലിത്ര തരംതാണ് കാണേണ്ട ആവിശ്യം ഇല്ല എനിക്ക് എനിക്ക് തോണണത് കാരണം ആർത്തവം ഉണ്ടെങ്കിലാണല്ലോ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളു അതില്ലെങ്കിൽ പിന്നെയൊരു ജനനം ഉണ്ടാവുന്നില്ലല്ലോ പോപുലേഷൻ ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾപ്പിന്നെ അത് നല്ല കാര്യം തന്നെയാണ് ആരും ഒഴിച്ചു നിർത്തേണ്ട കാര്യമൊന്നും അല്ല അതുകൊണ്ട് സ്ത്രീകൾ പാലിക്കേണ്ട ചട്ടങ്ങളുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം നോക്കുക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ അല്ലാണ്ട് ഇന്നിടത്ത് പോവാൻ പാടില്ല ഇവിടെ കയറാൻ പാടില്ല റൂമിൽത്തന്നെ ഇരിക്കണം അവടെനിന്നു മാറാൻ പാടില്ല ഈ ഏഴ് ദിവസവും റൂമിൽ ഇരിക്കണം പുറത്ത് ഇറങ്ങാൻ പാടില്ല ആൾക്കാരെ കാണാൻ പാടില്ല എന്നു പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം ഇതൊരു മോശം പ്രവണത അല്ലല്ലോ പ്രൊഡക്ഷനു വേണ്ടിയിട്ട് നമ്മൾ പോപ്പുലേഷനു വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണിത് അതിനിങ്ങനെ ആൾക്കാരിൽ നിന്ന് അകറ്റപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല അതിന് ആരോഗ്യത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചുമൊക്കെ ആണെങ്കിൽ വൃത്തിയായിട്ട് ഇരിക്കുക ആ സമയത്ത് നല്ല തുണികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ല വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ കഴുകിയ തുണികൾ മാത്രം ഉപയോഗിക്കുക പാഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഇടയ്ക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം അതുതന്നെ ഉപയോഗിക്കാതെ ഒരു മൂന്ന് നാലു മണിക്കൂർ കൂടുമ്പോൾ അതു മാറ്റുക അങ്ങനെയൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത്